ആ ഗുഡ് മോണിംഗ് സർ പിന്നേ ഒരു കല്യാണത്തിന് ബുക്ക് ചെയ്യാൻ വേണ്ടീട്ടായിരുന്നെ ഈ മാസം ലാസ്റ്റ് ചെക്കൻ്റെ വീട്ടുകാരാണ് ഇവിടെ പനോലി കറക്റ്റ് ലൊക്കേഷൻ പനോലി പിഒ പനോലി പിഒ വായനശാല ആ കാട്ടിങ്കളും കഴിഞ്ഞിട്ട് എത്തണം ആ ഫുഡും നമുക്കെങ്ങനെയാണ് റേറ്റൊക്കെ വരുന്നത്

അപ്പൊൾ കുറച്ചുംകൂടെ കൂടെ ആ ഒരുക്കണം പിന്നേ ചെക്കനെ ആണ് ഒരുക്കണ്ടത് വധുവിനെ അല്ല പിന്നേ കുറച്ച് അത്യാവശ്യം മോഡലിങ്ങായിട്ട് ചെയ്യണം അപ്പൊൾ റേറ്റ് എങ്ങനെ കൂടുമൊ ആ ഒന്നര പിന്നേ ഫുഡ് എങ്ങനാ ബൊഫെയൊ അങ്ങനെ ബിരിയാണിയോ അങ്ങനെന്തെങ്കിലും ആണോ

പിന്നേ പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ എറണാകുളത്താണ് പിന്നെ വധൂൻ്റെ വീട് അപ്പൊൾ നമക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ സെറ്റെയ്യാൻ ടൂറിസ്റ്റ് ബസ് തന്നെ വേണ്ട വരും ആ അത് കുഴപ്പമില്ല അപ്പം അതെങ്ങനെയാണ് ഇത്രേ അതെങ്ങനാണ് പൈസയൊക്കെ വരണ് ഒരൂ മൂന്ന് ബസ് വേണ്ട വരും അറുപത്തി നാലിൻ്റെ ആയാൽ കുഴപ്പമില്ലൈരുന്നു ആ ബസ് ഏതാണ് അങ്ങനൊക്കെ അറിയാൻ പറ്റുമൊ ആ നമുക്ക് ചെന്ന് വണ്ടിയൊക്കെ നോക്കാനൊക്കെ പറ്റുമൊ അങ്ങനെ

ഓക്കെ